ആ പറയൂ എന്ത് ലോണാണ് ആ ഹാ ലോൺ ലോണിനാവശ്യം എന്നു പറയുന്നത് നിങ്ങൾ ബാങ്കിലേക്ക് വരുമ്പോൾ നിങ്ങടെ ഐ ഡി പ്രൂഫെല്ലാം കൊണ്ടു വരിക പിന്നെ എന്തൊക്കെ സെക്യൂരിറ്റീസാണ് നിങ്ങളിവിടെ വയ്ക്കും എന്നുള്ള കാര്യം നിങ്ങൾ അത് മുൻകൂട്ടി അറിയിക്കണം പിന്നെ വരുന്നത് ബാങ്കിലേക്ക് വന്നാൽ അവരവിടുത്തെ പ്രൊസീജിയേഴ്സെല്ലാം പറഞ്ഞു തരും ഒരു ഫോമുണ്ട് അത് ഫിൽ ചെയ്ത് കൊടുക്കണം എല്ലാം കറക്ട് ആണെങ്കിൽ മാത്രമേ നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മൾ ആ പറയൂ ആ ഈ ഒരു പ്രൊസീജ്യറ് നമ്മൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ സത്യസന്ധത കാണിക്കുന്നോ അത്രത്തോളം വേഗമായിട്ട് നമ്മൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതിപ്പോൾ സെക്യൂരിറ്റീസെല്ലാം നിങ്ങൾ നിങ്ങൾ ഇൻസോൾവെൻ്റായിട്ടിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് റിസ്ക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ബാഗ്രൗണ്ടും നിങ്ങളെ എല്ലാവരും അന്വേഷിച്ചിട്ടല്ലേ നമ്മൾ ലോൺ കൊടുക്കുന്നുള്ളൂ ആ പിന്നെ നിങ്ങൾ ഓ ഇൻ്ററെസ്റ്റ് റേറ്റിനെ കുറിച്ചെല്ലാം ധാരണയുണ്ടോ നിങ്ങൾക്ക് ആ നിങ്ങളെന്നാൽ ഇന്നുച്ചയ്ക്ക് ബാങ്കിലോട്ട് വന്നോ ഇവിടെ മാനേജറെ കണ്ടാൽ മതി ബാക്കിയുള്ള ഇൻ്ററെസ്റ്റിൻ്റെയെല്ലാം കാര്യം ഞങ്ങൾ ഇവിടെ സ്റ്റാഫുണ്ട് അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും ആ പിന്നെ നിങ്ങളെ ഐ ഡി പ്രൂഫെല്ലാം കറക്ട് ആയിരിക്കണം നമ്മൾ അന്വേഷിച്ചതെന്തെങ്കിലും ആ നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നമ്മൾ ലോൺ തരാൻ തരുന്നില്ല എന്തായാലും കാരണം നമൾക്കത് റിസ്ക്കായിട്ട് വരും

ഓ അത് നിങ്ങൾ മുമ്പ് ലോൺ എടുത്തിട്ടുണ്ടോ ആ ആദ്യായിട്ടാണല്ലേ ആ ശരി നിങ്ങൾ എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് വന്നോളു എത്രയും പെട്ടന്ന് കിട്ടി ആ നമ്മൾ ആക്കി തരാം നേരെ ആ ശരി വേറെയെന്തെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ആക്കാനോ

ആ ആ നിങ്ങളിന്ന് ഉച്ചയ്ക്ക് വന്നോളു ആ ശരി